ഇന്ത്യേൻ്റെ ഫാഷൻ സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിലും ഓരോ രീതിയിലുള്ള ഡ്രസ്സ് ആണ് ധരിക്കുന്നത് എന്താണ് വെച്ചാൽ അവിടുത്ത പാരമ്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥക്കനുയോജ്യമായ വസ്ത്രങ്ങളാണ് ഓരോരുത്തരും ധരിച്ചുകൊണ്ട് ഇരിക്കുന്നത് പഴയ വസ്ത്രരീതികളുമായി താരതമ്യം ചെയ്യുകയാണ് പഴയ വസ്ത്ര രീതികൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ പുതിയ മോഡൽ വസ്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പണ്ടത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്ര രീതികൾ തന്നെയാണ് ഇപ്പോഴും അനുവർത്തിക്കുന്നത് പക്ഷെ അതിൽ ചെറുതായിട്ട് ചില മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ടൈറ്റ് പാൻറ്റൊക്കെ പണ്ടത്തെ സിനിമയുണ്ട് ഇതിപ്പഴും ഉണ്ട് ഇപ്പം അത് മാറിയിട്ട് ഇത്തിരി ഫാഷനൊക്കെ ആയിട്ട് വേറെ മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ പാശ്ചാത്യ വസ്ത്ര രീതികൾ ഇന്ത്യൻ വസ്ത്ര സ്വാധീനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒത്തിരി കുട്ടികൾ പുറത്ത് പോയി പഠിക്കുന്നു അപ്പുറത്ത് പോയി പഠിക്കുമ്പോൾ അവർ ഇവിടുത്തെ വസ്ത്ര രീതിയിൽ അവിടുത്തെ കാലാവസ്ഥയെ ചിലപ്പോൾ നമ്മുടെ വസ്ത്രം സ്യൂട്ട് ആയെന്ന് വരില്ല അപ്പോൾ അവിടെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു അതവർക്ക് കംഫർട്ട് ആയി തോന്നുന്നു അതുതന്നെ അവർ നാട്ടിൽ വരുമ്പോഴും അനുവർത്തിച്ച് പോരുന്നു പിന്നെ ടി വി പരസ്യങ്ങൾ പിന്നെ ഒത്തിരി ഓൺലൈൻ ഓപ്ഷൻ നമുക്ക് ഒത്തിരി ഒത്തിരി ഡ്രസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും എല്ലാവരും തന്നെ പുതിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പഴും എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ചുരിദാറാണ് അത് ധരിച്ച് പോവുമ്പോൾ എനിക്ക് ഇതൊരു ആത്മവിശ്വാസം ഉണ്ട് മറ്റ് രീതിയിൽത്തെ വസ്ത്രങ്ങൾ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മോർ കംഫർട്ട് എന്ന് പറയുന്നത് ചുരിദാറ് തന്നെയാണ് ചുരിദാറ് തന്നെയാണ് അപ്പം അത് വാങ്ങുക എന്ന് പറയുന്നത് മിക്കവാറും ഷോപ്പിൽ പോയിട്ട് നേരിട്ട് വാങ്ങും ഓൺലൈനിൽനിന്ന് വളരെ കുറച്ചേ വാങ്ങാറുള്ളു അല്ലെങ്കിൽ സ്റ്റിച്ച് ച്ചെയ്ത് യൂസ് ചെയ്യുകയാണ് പതിവ്